ആരാണ് വിളിക്കുന്നത് ആ ആ ആ നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത് ആ ആ പിന്നെ ഏ ഇപ്പോൾ കോഴിക്കോടിപ്പോൾ കുറെ സ്ഥലങ്ങൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് ജില്ലകൾ അപ്പം എല്ലാ സ്ഥലങ്ങളും കാണാനാണോ എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങൾ കണ്ണൂരാ ആ ആ അപ്പോൾ നിങ്ങൾ എത്ര ആളാണ് വരുന്നത് ആ അപ്പം നിങ്ങൾക്കൊരു ഓ ഇന്നോവ മതിയാവൂലല്ലേ ഒരു ട്രാവലർ എട് എടുത്താലോ ബൂക്ക് ചെയ്താലോ ആ ഒരു ട്രാവലർ ബുക്ക് ചെയ്യുക അപ്പോൾ ഒരുപാട് സ്ഥലണ്ടാവോലോ നിങ്ങൾക്ക് കെടക്കാനും ഇപ്പോൾ എ രണ്ട് സ്ഥലങ്ങൾ രണ്ട് ജില്ലെത്തേ സ്ഥലങ്ങൾ കാണുമ്പോൾ ഒരുപാട് സമയം വേണല്ലോ അപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്കായിരിക്കോല്ലോ നിങ്ങൾ വരുന്നത് ആ ആ പിന്നെ ഒരു മൂന്ന് ആ ഒരു മൂ ഏ മൂന്ന് നാല് ദിവസം എടുക്കും എല്ലാ എല്ലാ സ്ഥലങ്ങളും കാണുമ്പോൾ ഒരു മൂന്ന് നാല് ദിവസം എടുക്കും അപ്പം നിങ്ങൾക്ക് ട്രാവലർ ആകുമ്പോൾ അതിൽ ഇപ്പോൾ സുഖായിട്ടിരിക്കാലോ കുറച്ചുകൂടി വിശാലതണ്ടാകോലോ അപ്പം നിങ്ങൾക്ക് ഇവിടെന്ന് തന്നെ താമസ സൗകര്യം അതുപോലെ ഫുഡ് ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അന്നേരം താമസ സൗകര്യംന്ന് പറയുമ്പം നിങ്ങൾ ഈ ഓരോ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോവുമ്പം സ്ഥലങ്ങൾ വേറെ വേറെ മാറും ഓരോ വില്ലെയോ അല്ലെങ്കിൽ അപാർട്മെൻറ്റോ അങ്ങനേ നോക്കി എടുക്കേണ്ടി വരും അപ്പോൾ അതിൻറ്റെ ഒക്കെ എ നിങ്ങളുടെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു പാക്കേജ് ആവുമ്പോൾ അത് കുറച്ച് കുറയും ഏ ഏ ഇപ്പൊരു അതിൻറ്റൊരു പാക്കേജെന്ന് പറയുന്നൊരു ഓ ഒരു ജില്ല കാണുമ്പോഴൊരു പന്ത്രണ്ടായിരം വരും അപ്പോൾ അത് കുറച്ച് പതിനഞ്ചായിരമാണ് അതിൻറ്റെ ശരിക്കുള്ള എമൗണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ പാക്കേജായിട്ടെടുക്കുന്നത് കൊണ്ട് ഒരു മൂവായിരം രൂപ കുറയും അപ്പം പന്ത്രണ്ട് എ ഒരു പന്ത്രണ്ടായിരം അപ്പം രണ്ടു സ്ഥലം കൂടേ കാണുമ്പോളൊരു ഇരുപ്പത്തിനാലായിരം ഇരുപത്തിനാലായിരം രൂപ വരും മൊത്തത്തിൽ കാണുമ്പോൾ പിന്നെ ഫുഡ് അതിലെ ഫുഡും അത് പോലെ പിന്നെ താമസ സൗകര്യം എല്ലാത്തിനും അത് ആ ഒരു പാക്കേജിൽ ഈ ഒരു എമൗണ്ട് തന്നേ തന്നാൽ മതി അപ്പം ആ ബുക്ക് ചെയ്യണോ എ ഏത് ദിവസത്തേക്കാ ബുക്ക് ചെയ്യേണ്ടത് ആ ആ ആ അപ്പോൾ ഇവിടെ ബുക്കിംഗ് ഒന്നുമില്ല അപ്പോന്നാൽ ആ അന്നത്തേക്ക് ബുക്ക് ചെയ്യുക നിങ്ങൾ എല്ലാ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഞങ്ങൾ പിന്നെ പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളും പിന്നെ ആ ഒരു പത്താളല്ലേ വരുന്നത് ഒരു പത്താളെ ഫുഡ് നിങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ എ നിങ്ങൾക്കിഷ്ടമുള്ള പോലെ പറഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പം ഇവിടുന്ന് കിട്ടും ആ ഫുഡ് വേറെ ആദ്യം തന്നെ ഇങ്ങനെ ഓർഡർ ചെയ്ത് വെക്കുന്നില്ലല്ലോ ഇന്ന സാധനം വേണമെന്ന് നിങ്ങൾ വന്നിട്ട് നോക്കീട്ട് ആ അങ്ങനെയല്ലേ കഴിക്കൂലേ ആ ആ എന്നാൽ ഓക്കേ